ഓടിയാലുള്ള ഒരു മെയിൻ ഗുണം എന്നുവെച്ചാൽ നമ്മുടെ ബോഡി ഫാറ്റ്സ് ഒക്കെ കുറയും പിന്നെ ഒരു സ്പോട്സ് സ്പോട്സ് ലെവൽ എടുത്തു കഴിഞ്ഞാൽ ഒരു അത്ലറ്റ് മീറ്റൊക്കെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് മെഡല് വരെ നേടാൻ ചാൻസുണ്ട് നമ്മുടെ ഡെയിലി രാവിലെ എണീറ്റ് ഓടിയാൽ മതി ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ബോഡിയിലെ രോഗങ്ങൾ രോഗാണുക്കളൊക്കെ കുറേ പോകും അപ്പോൾ എന്താ പറയുക ബോഡിയൊന്നു ഫിറ്റാവും കുറെ രോഗരോഗവിമുക്തനാവും അത്രയും നല്ലതാണ് രാവിലെ ഓടിക്കഴിഞ്ഞാൽ ആ മൈൻഡ് ഒന്ന് ഫ്രഷാവും രാവിലെയും വൈകീട്ടൊക്കെ ഓടിയാൽ തന്നെ നമ്മുടെ ശരീരം ഒരു എന്താ പറയുക ഒരു പിത്തത്തടിയിൽ നിന്നുമൊരു സ്ലീം ബ്യൂട്ടി അങ്ങനൊരു ഇതിലോട്ട് വരും നമ്മൾ അപ്പോൾ ഓട്ടം എന്തുകൊണ്ടും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അതൊരു മരുന്ന് കുടിക്കുന്നതിനേക്കാളും നല്ലതു രാവിലെ എണീറ്റോടുക അല്ലെങ്കിൽ വൈകീട്ടൊന്നോടുക അങ്ങിനെ ഓടിയാൽത്തന്നെ കുറേ മാറ്റങ്ങൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ വരും പിന്നെപ്പിന്നെ നമ്മൾ കുറച്ചുകൂടി ശീലിച്ചുകഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി രാവിലെ എണീറ്റോടാനും ചാടാനുമൊക്കെ തുടങ്ങും നമ്മൾ അപ്പോൾ ഒന്ന് ഓടുന്നത് എത്ര നല്ലതാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് ഏറ്റവുമൊന്നു ഏറ്റവും ബെറ്റെറെന്നു വെച്ചാൽ എന്താ രാവിലെ എണീറ്റോടുക ശരീരത്തിലെ ഫാറ്റൊക്കെ ഒന്ന് കുറയ്ക്കുക രോഗങ്ങൾ കുറയ്ക്കുക അത്ര തന്നെ പിന്നേ കുറേ നമുക്ക് നല്ലൊരു അത്ലറ്റിക്ക് മീറ്റിനൊക്കെ പോയിക്കഴിഞ്ഞാൽ നമുക്കൊരു മെഡലൊക്കെയടിക്കാം ഒരു ഓടി ഓടിയൊന്ന് പ്രാക്ടീസ് ചെയ്ത് സെറ്റായാൽ മതി